ഇന്ത്യൻ സിനിമ ലോകത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിനിമ പറയുകയാണെന്നു പറയുമ്പോൾ ഒരുപാട് ഭാഷകളെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ത്യൻ സിനിമ ഇപ്പോൾ ഇങ്ങ് ഇന്ത്യയുടെ താഴ് ഭാഗത്ത് അതായത് കേരളം തമിഴ്നാട് കന്നഡ തെലുങ്കാന അങ്ങനെ എല്ലാ ഭാഷകളിലും ചിത്രങ്ങൾ അടങ്ങിയതാണ് ഇന്ത്യൻ സിനിമ അപ്പോൾ മലയാളം ആയാലും തെലുങ്ക് ആയാലും കന്നഡ ആയാലും തമിഴ് ആയാലും ആന്ധ്ര ആയാലും തെലുങ്കാന ആയാലും എല്ലാ ഭാഷകളിലും അതിന്റേതായ ചിത്രങ്ങൾ എല്ലാ ദിവസവും എത്ര ചിത്രങ്ങളാണ് റിലീസാകുന്നതെന്നു പോലും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ചിത്രങ്ങൾ നമുക്ക് ഓരോ ദിവസം ഇന്ത്യയിൽ റിലീസാകുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ മൂന്ന് ഇപ്പോൾ കോമഡി ചിത്രങ്ങളുണ്ട് ഫൈറ്റ് സീൻ അങ്ങനത്തെ ചിത്രങ്ങളുണ്ട് പിന്നെ പാട്ടിനെക്കുറിച്ചിട്ടുള്ളതുമുണ്ട് ഡ്രാമ ടൈപ്പുണ്ട് അങ്ങനെ പല പല രീതിലുള്ള ചിത്രങ്ങൾ അപ്പോൾ ഇതിനെ എല്ലാം ഇപ്പോൾ ഈ ഭാഷകളെല്ലാം കൂടി കുറേ അധികം നല്ല മികച്ച നടിമാരും നടന്മാരും നടിമാരും പ്രൊഡ്യൂസർമാരും തിരക്കഥാ കൃത്തുക്കളും ഡയറക്ടർമാരും ആർട്ടുകാരും കോസ്സ്റ്റ്യൂം അങ്ങനെ ഈ ഒരു നമ്മുടെ ഇന്ത്യൻ സിനിമ മേഖല ഒരുപാട് പേരെ ബന്ധപ്പെട്ടും അല്ലങ്കിൽ ഇന്ത്യൻ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ നോക്കുകയാണെന്നു പറയുമ്പോൾ മികച്ച നടൻ നടി അങ്ങനെയുള്ള ലിസ്റ്റ് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സത്യൻ മാഷ് മുതൽ പിന്നെ നമ്മുടെ ഇവിടെ നോക്കുകയാണെന്നു പറയുമ്പോൾ പ്രേം നസീർ ജയൻ അങ്ങനെ മികച്ച മധു മധു സാർ അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ അതിൽ നമുക്ക് ലിസ്റ്റ് എടുക്കാൻ പറ്റാത്തത്ര അതായത് മലയാളത്തിൽ തന്നെ ഉണ്ട് പിന്നെ തമിഴ് തെലുങ്ക് എല്ലാ ഭാഷയിലേയും ഒട്ടനവധി എന്താ പറയുക നടന്മാരും നടിമാരുമൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് മികച്ചതായിട്ടുള്ള കുറേ അധികം അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ അവാർഡാണെങ്കിലും കേരളത്തിൻ്റെ ആണെങ്കിലും ദേശിയ അവാർഡുകളാണെങ്കിലും വിദേശത്ത് നിന്നുള്ള അവാർഡുകളാണെങ്കിലും അങ്ങനെ കുറേ അധികം അവാർഡുകൾ നമ്മുടെ ഇന്ത്യൻ സിനിമ കരസ്ഥമാക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഗാനം സംഗീതം സംഗീതത്തിനെക്കുറിച്ച് നോക്കുകയാണെന്നു പറയുമ്പോൾ പല രീതിയിലുള്ള ഇപ്പോൾ സിനിമ മേഖല നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സംഗീത ഇപ്പോൾ സംഗീതക്കാർ ആൾക്കാരുണ്ട് പിന്നെ പാട്ടുകാരുണ്ട് ഗായകരുണ്ട് അതിൽ എന്താ പറയുക അതിൽ നല്ല രീതിയ്ക്ക് കഴിവ് തെളിയിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ ഗായകന്മാരും അങ്ങനത്തെ ആൾക്കാരും അപ്പോൾ അതിനു നമ്മൾ മെയിനായിട്ട് പറയുകയാണെന്നു പറയുമ്പോൾ ഇപ്പോഴത്തേതിൽ നമുക്ക് മലയാളത്തിൽ നോക്കുകയാണെന്നു പറയുമ്പോൾ കെ ജെ യേശുദാസ് നല്ലൊരിതാണ് പിന്നേ എ ആർ റഹ്മാൻ സാറുണ്ട് പിന്നേ മലയാളത്തിൽ എം ജി ശ്രീകുമാർ പിന്നെ അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട് എല്ലാം പ്രിയപ്പെട്ട ഗായകൻ അല്ലങ്കിൽ ഗായിക എന്നുള്ളതിനെക്കുറിച്ച് അതായത് അതിനേക്കാളും ഉപരി നമുക്ക് കുറേ ആൾക്കാർ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ശ്രേയ ഘോഷാലുണ്ട് പിന്നെ അനിരുദ്ധ് രവിചന്ദ്രൻ അങ്ങനത്തെ ആൾക്കാർ പുതിയ പുതിയ ആൾക്കാർ അപ്പോൾ ഓരോ രീതിയിലുള്ള പാട്ടുകൾ ഓരോ രീതിക്കുള്ള ആൾക്കാർ അതായതിപ്പോൾ ഫാസ്റ്റ് നമ്പർ സോംഗ്സ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ശാസ്ത്രീയ പരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ മെലഡി ചെയ്യുന്നത് അപ്പോൾ ഓരോ തരത്തിലുള്ള പാട്ടുകളിൽ നമുക്ക് മികച്ച ഗായകരാരാണ് അല്ലങ്കിൽ അങ്ങനൊരു അങ്ങനെ മാർക്കിടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടന്ന് നടക്കില്ല ഈ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് കൂടുതലും അനിരുദ്ധ് അങ്ങനത്തവർ നമ്മൾ കുറച്ച് പഴയ ആൾക്കാരായതു കൊണ്ട് നമുക്കിപ്പോൾ എന്താ പറയുക പഴയ മെലഡി പാട്ടുകൾ അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലിഷ്ടം